പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് പതിനേഴ് ജൂലൈ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി രണ്ട് ജനുവരി രണ്ടായിരത്താറ്